നമസ്കാരം പറയൂ ആ പരാതി ഞാൻ കണ്ടായിരുന്നു പക്ഷേ അതിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ആ ഫാന് നന്നാക്കിയതാണ് വീണ്ടും ഇതെങ്ങനെ കേടായി ആ ഞങ്ങളിവിടെ കോളേജിലെ ഫണ്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് തരുന്നത് അപ്പോൾ ഞാന് ഇന്നലെ ക്ലാസിൽ കയറി നോക്കിയപ്പോൾ ഫാനിൻ്റെ ഒരു സൈഡ് പൊട്ടിയത് ഞാൻ കണ്ടു ആ നമുക്ക് ആ പരാതി പരിഹരിക്കാം പക്ഷേങ്കില് ഫണ്ട് വരട്ടെ വന്നതിന് ശേഷം മാത്രമെ നമ്മുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളു ആ നമുക്ക് പരിഹരിക്കാം നമ്മള് നോക്കട്ടെ നമുക്കത് പരിഹരിക്കാം മൂന്ന് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് കോളേജില് ഫണ്ട് തരേണ്ടത് ഗവൺമെൻറ്റാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രമെ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റൂ കുട്ടീ കുട്ടീ ഫണ്ടില്ല ഇപ്പം രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഫാന് തന്നെ ഇപ്പം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ടിന് ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപതിനായിരം രൂപ യുടെ ഏ സി ഞാൻ എങ്ങനെ വാങ്ങി വെച്ച് തരാനാണ് നമുക്ക് പരിഹരിക്കാം നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഗവണ്മെൻറ്റിനോട് ചോദിക്കാം ആ നമുക്ക് പരിഹരിക്കാം പരിഹരിക്കാം